ആ ആ ഷമ്മാദ് ഡോക്ടർ ആണ് പറയു അ ആ പറഞ്ഞോ പറഞ്ഞോ ആ മനസ്സിലായി മനസ്സിലായി പറഞ്ഞോ ആ

ഉറങ്ങാൻ ഇന്ന് ഇപ്പോൾ ഉറങ്ങുമ്പോൾ എനിക്ക് ഇങ്ങനെ ഇടയ്ക്ക് ഇടയ്ക്ക് ഉണർന്നിട്ട് ചുമ അങ്ങനത്തെ അസുഖം അങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടോ ചൂട് വെള്ളം അല്ലേ കുടിക്കുന്നത് താങ്കൾ ആ അത് തിളപ്പിച്ച് കുടിക്കണം കാരണം നിങ്ങൾ ഓൾറെഡി ഒരു രോഗി ആണല്ലോ അപ്പോൾ തിളപ്പിച്ച് കുടിക്കണം വെള്ളം ആ വെള്ളം തിളപ്പിച്ച് കൊടുക്കണം വേറെ കൈ വിറയൽ അങ്ങനത്തെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ വേറെ ശ്വാസ ബുദ്ധിമുട്ട് ആ ജലദോഷത്തിന് ഉള്ള ഗുളിക ഞാൻ ഇന്നലെ എഴുതിയിട്ടുണ്ടല്ലോ മെഡിക്കൽ നിന്ന് വാങ്ങിയിട്ടില്ലേ ആ ആ ആ ആ നിങ്ങൾ മെഡിക്കല്ല് പോയിട്ട് ജലദോഷത്തിൻ്റെ ഗുളിക ഞാൻ പറഞ്ഞത് അല്ലാലോ ഞാൻ എഴുതി തന്നത് തന്നെ വാങ്ങിയിട്ടില്ലേ ആ ഇപ്പോൾ എന്നിട്ട് ഇപ്പോൾ എങ്ങനെ കുറവ് ഉണ്ടോ പിന്നെ നല്ലോണം കയ്യാത്തതിന് പിന്നേം ആ ചുമ മാത്രം അല്ലേ ഇപ്പോൾ ഏകദേശം മൂന്ന് നേരം അല്ലേ കുടിക്കൽ വൺ ഡേ അത്ര അല്ലേ ആ അത് ഏകദേശം കുറയും ഏകദേശം ഇന്നും കൂടി നോക്ക് ഇല്ലെങ്കിൽ നിങ്ങൾ അടുത്ത അപ്പോയിൻമെൻ്റ് എടുത്തിട്ട് വരൂ ഞാൻ ഇപ്പോൾ രണ്ട് ദിവസം ദിവസം ലീവ് ആണ് ബാംഗ്ലൂരിൽ പോവാൻ ഉണ്ട് എനിക്ക് ആ അപ്പോൾ ഇനി ഏകദേശം നെക്സ്റ്റ് തിങ്കൾ ആവുമ്പോൾ ഫ്രീ ആവും ഞാൻ പിന്നെ ബാക്കി ഡോക്ടേഴ്സ് എല്ലാം ഉണ്ടാവും ഹോസ്പിറ്റല് ഞാൻ തിങ്കളാഴ്ച ആവും എത്തുമ്പോൾ

അതിന് മുമ്പ് ഞാൻ വെള്ളിയാഴ്ച ശ്രമിക്കാം വെള്ളിയാഴ്ച ആ വീട്ടിൽ വന്നാൽ കാണാൻ പറ്റും തനിക്ക് എൻ്റെ വീട് അറിയുമോ ആ അത് അപ്പോൾ അപ്പം വന്നോ പ്രശ്നം ഇല്ല പ്രശ്നം ഇല്ല ആണ് എന്നാൽ വൈകിട്ട് ഇപ്പോൾ മണി രണ്ട് മണി ആയി ആറ് മണിക്ക് മുമ്പ് എത്തുമെങ്കിൽ നല്ലത് അയാൾക്ക് ആ ഓക്കെ ആ ഓക്കെ ഓക്കെ